ആ മാഡം കുഴപ്പമില്ലായിരുന്നു എന്റെ മുഖത്തെ കരുവാളിപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ല ഫെയർ ആയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പം മൂന്നാല് ദിവസം ആയല്ലോ ചെയ്തിട്ട് ആ എന്ത് ചെയ്യുന്നു ഈ കറുപ്പ് കണ്ണിൻറെ അടിയിൽ കറുപ്പൊക്കെ വരുന്നത് മാറാന് എന്താണ് ചെയ്യേണ്ടത് ആണോ ആ

സണ്സ്ക്രീണ് എസ് പി ഏതിന്റെയാണ് ഉപയോഗിക്കേണ്ടത്

ഓക്കെ വീട്ടിൽ ഇരിക്കുമ്പം മറ്റേ ക്യാരറ്റോ അങ്ങനെയുള്ളത് വല്ലതും കണ്ണിനടിയിലും മുഖത്തൊക്കെ ഇട്ടാൽ ആ ഓക്കെ ആ ഓക്കെ ആ ആ ഓക്കെ ആ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നതാണോ നല്ലത് ഓക്കെ ആ ആ ഞാൻ മാസത്തിലൊന്ന് വന്ന് ഫേഷ്യൽ ചെയ്താൽ മതിയല്ലേ

ഓക്കെ ബ്ലീച്ച് ഇട്ടിരിക്കുന്നതുകൊണ്ടൊരു മാസം ഒക്കെ നിൽക്കുമോ എന്റെ മുഖത്തെ ഈ ഫെയര് ആയിട്ട് നിൽക്കുമല്ലോ

ആ ഓക്കെ ഓക്കെ പിന്നെ ഞാൻ ഇടയ്ക്ക് വന്നോളാം ഷോപ്പിലേക്ക് വന്നോളാം കേട്ടോ വന്ന് ശനിയാ അത് കഴിഞ്ഞൊരു കല്യാണം ഒക്കെ ഉണ്ട് അപ്പോഴത്തേന് അന്നേരത്തേക്കിണ് വരാം പിന്നെ എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് വിടുന്നുണ്ട് അപ്പം പുള്ളിക്കാരിക്കും ബ്ലീച്ച് ചെയ്യാനും എന്താണ് എന്റെ കണ്ട് എന്റെ ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്റെ ചെയ്തത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചിരുന്നു എവിടെയാണ് ചെയ്തതെന്ന് അപ്പോൾ ഞാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന ഇടത്ത് ചെല്ലണം എന്ന് അപ്പോൾ മേഡത്തിനടുത്തേക്ക് വരും അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്ത് ബ്ലീച്ച് ഒക്കെ ഇട്ട് അത്രയൊക്കെ ചെയ്തു കൊടുത്ത് ആ പെഡിക്യൂറും ഒക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നാളെ അങ്ങോട്ട് വരും കേട്ടോ അവരോട് പറയേണേത് കൊണ്ടാ

ആ അത് റേറ്റ് ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് താല്പര്യം എങ്ങനെയാണോ അതുപോലെ ചെയ്തു കൊടുക്ക് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചെയ്തുകൊടുത്താൽ അവർ മുഖേനയും ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടാന് സാധ്യത ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്ക് എനിക്ക് ചെയ്തത് പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്ക് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു